പുതിയ ഗാനങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ല പഴയ ഗാനങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പുതിയ ഗാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊക്കെ പറ്റുന്ന ഗാനങ്ങളാണ് പുതിയ ഗാനങ്ങള് പഴയ ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ പഴയ ഗാനങ്ങളാണ് ഇഷ്ടം പുതിയ ഗാനങ്ങള് നമുക്കത് ഇഷ്ടപെടാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പഴയ ഗാനങ്ങള് പഠിച്ച് വന്ന് ശീലിച്ചേക്കുന്നത് കാരണം നമുക്ക് പഴയ ഗാനങ്ങൾക്ക് ഒക്കെയാണ് ഒത്തിരി അർത്ഥങ്ങളും കാര്യങ്ങളു ഒക്കെ ആണ് ഈ പഴയ ഗാനങ്ങളെന്ന് പറയുമ്പഴത്തേക്കും ഇപ്പോൾ ഉള്ള ഗാനങ്ങളെന്ന് പറയുമ്പഴത്തേക്കും അതിൻ്റെ അകത്തു ഒരർത്ഥവും ഇല്ല ചുമ്മാ കുറെ വലിച്ചു വാരി എഴുതി പാട്ടുണ്ടാക്കി വെച്ചേക്കുന്നെന്നുള്ളത് മാത്രമെ ഉള്ളൂ എനിക്ക് പഴയ ഗാനങ്ങളോടാണ് കൂടുതല് ഇഷ്ടം പിന്നേ പഴയ ഗാനങ്ങൾക്ക് തന്നെയാണ് അതിന് ആട്ട ഉള്ള അർത്ഥങ്ങളും കാര്യങ്ങളും പിന്നെ അത് തന്നെയല്ല പഴയ മനുഷ്യർക്ക് പഴയ ഗാനങ്ങള് തന്നെയാണ് ഇഷ്ടം പുതിയ ഗാനങ്ങളോട് അതൊക്കെ പഠിച്ച് വരാനായിട്ട് നമുക്ക് ഇന്നത്തെ സമൂഹത്തിന് പിള്ളേര് ഇന്നത്തെ സമൂഹത്തിലെ പിള്ളേർക്ക് പഠിച്ച് വരാനാണെന്നുണ്ടെങ്കില് പുതിയ ഗാനങ്ങള് തന്നെയായിരിക്കും അവർക്കെളുപ്പം പക്ഷെ പഴയ മനുഷ്യരാകുമ്പഴത്തേക്കും നമുക്കാണെന്നുണ്ടെങ്കിൽ പഴയ ഗാനങ്ങള് തന്നെയാണ് കൂടുതല് എളുപ്പവായിട്ടെനിക്ക് തോന്നുന്നത് പിന്നെ അത് തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് വെച്ചാലേ പഴയ ഗാനങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കില് ഒത്തിരി അർത്ഥങ്ങളും വാക്കുകൾക്കൊക്കെ ഒത്തിരി അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പുതിയ ഗാനങ്ങളാണെന്നുണ്ടെങ്കില് അയിന് യാതോരു ഇത് ഇല്ല ചുമ്മാ ഒരു പാട്ട് ഇപ്പം ഒരു പാട്ടുണ്ടാക്കണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുമ്മാതാണെന്ന് പറഞ്ഞാലും ഓരോരുത്തര് എഴുതി പാട്ടായിട്ടും ഇപ്പം ഉണ്ടാക്കിയങ്ങ് പാടുവാണ് അതാ പ്പ പിന്നെ പാട്ടിനോടൊക്കെയാണെന്ന് പറഞ്ഞാലും ഭയങ്കര ഇഷ്ടവാണ് ഇഷ്ടം ഉള്ളതുകൊണ്ട് നമുക്ക് പഴയ ഗാനങ്ങളാണ് കൂടുതല് നമുക്ക് പാടാനായിട്ട് ഇഷ്ടം തോന്നുന്നത് പുതിയ ഗാനങ്ങള് നമുക്ക് പാടാനായിട്ട് നമുക്ക് തോന്നത്തില്ല കാരണം എന്നാന്ന് വെച്ചാൽ പുതിയ ഗാനങ്ങളും പഴയ ഗാനങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുന്നതും അപ്പോൾ നമ്മളാ പഴയ ഗാനത്തോട് ഇഷ്ടപെട്ടതു കൊണ്ടായിരിക്കാം നമുക്ക് പുതിയ ഗാനങ്ങള് ഇഷ്ടപ്പെടാതിരിക്കുന്നത് പിന്നേ ഒരോർത്തർക്കും ഓരോ ശൈലിയല്ലേ നമ്മ എന്നെ സംബന്ധിച്ച് പറയുക ആണെന്നുണ്ടെങ്കില് എനിക്ക് പഴയ ഗാനങ്ങളാണ് കൂടുതലിഷ്ടം പുതിയ ഗാനങ്ങള് എനിക്ക് ഒട്ടും തന്നെ താല്പര്യം ഇല്ല ഞാനതിൻറ്റാത്ത് പഠിച്ച് ഞാന് പാടാറും ഇല്ല പഴയ ഗാനങ്ങളാണ് ഞാന് റേഡിയോയ്ക്ക് അകത്താണെന്ന് പറഞ്ഞാലും പഴയ ഗാനങ്ങള് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ടിവിക്കകത്ത് ആണേലും ടിവിയിലൊക്കെ പാട്ടുകള് കേൾക്കുമ്പോഴത്തേക്കും നമ്മള് ഇപ്പം പഴയ ഗാനങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അത് കാണാനും കേൾക്കാനും ഒക്കെ നമുക്ക് കൂടുതലും താല്പര്യം പഴയ ഗാനങ്ങളാണ് പുതിയ ഗാനങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് പറ്റുന്ന കണക്കത്തെയുള്ള രീതിയില് ഇന്നത്തേ ഇന്നത്തെ ശൈലിയിലുള്ള പാട്ടുകളൊക്കെയാണ് പോയ പുതിയ പാട്ടുകളൊക്കെ സൃഷ്ടിച്ചേക്കുന്നത് എഴുതിയേക്കുന്നത് അത് പുതിയ ഗാനങ്ങളെന്ന് പറയുമ്പഴത്തേനും അവർക്ക് പറ്റിയ ഗാനങ്ങളാണ് പക്ഷെ നമുക്ക് ഇന്നത്തെ തലമുറ അതിനെ അതിജീവിച്ച് പോവും പക്ഷേ പഴയ ആൾക്കാരൊക്കെ പുതിയ പാട്ടിനോട് വലിയ താല്പര്യം കാണിക്കത്തില്ല കാരണം എന്ന് വെച്ചാല് അവര് പാടി പഠിച്ചതും പാടിയതും അവരുടെ ആ ശൈലിയും എല്ലാം പഴയ ഗാനങ്ങളാണ് അപ്പം ആ പഴയ ഗാനങ്ങളോടാണ് അവർക്ക് കൂടുതല് ഇഷ്ടം ആ പഴയ ഗാനങ്ങളിൽ തന്നെ ആണ് നമ്മള് താല്പര്യപ്പെടുന്നത് അത് കാരണം എനിക്ക് പഴയ ഗാനങ്ങളോട് കൂടുതല് ഇഷ്ടവും അഭിപ്രായവും എൻ്റെ അഭിപ്രായം ഇതാണ് പഴയ ഗാനങ്ങളാണ്